ഇപ്പോൾ നമ്മള് ഞാൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളുകളിൽ തൊട്ട് തന്നെയാണ് അതായത് ചിത്ര രചനയും ചിത്രരചനയും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയങ്ങളിലൊക്കെ തൊട്ട് ഞാൻ വരച്ച് പഠിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ വേറൊരു അതായത് വരക്കുന്ന ഒരു സ്ഥലത്ത് ഒക്കെ പോയിട്ട് ഞാൻ പഠിക്കാറുണ്ടായിരുന്നു അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകളും കാര്യങ്ങളൊന്നുമില്ല അതായത് അതായത് പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഒക്കെയാണ് അപ്പം ഇപ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല സാധ്യതയും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇപ്പോൾ കോളേജുകളിൽ പോകാണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിലും നമുക്ക് അല്ലാത്ത കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ തന്നെ നമുക്ക് പഠിക്കുന്ന പല രീതിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിലൂടെയൊക്കെ നമുക്ക് ചിത്രരചനയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ് ഇപ്പം ഓരോ കലാകാരന്മാർക്കും നമുക്ക് പല രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് പല രീതിയിലും ഉള്ള കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടീട്ട് സാധിക്കുന്നതാണ് അപ്പം കുറെ ഇപ്പോൾ കോളേജുകളിൽ തന്നെ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പ ഫറൂക്ക് ആര്ട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങനത്തെ പല രീതിയിലുള്ള കോളേജുകളുണ്ട് ഇവിടെക്കേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിത്രം രചനക്ക് വേണ്ടീട്ട് മാത്രം ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പം അല്ലാത്തവർക്ക് ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പൈസ അടച്ചിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കാം ഇല്ലെങ്കില് നമുക്ക് വാട്ട്സ്ആപ്പ് വഴി പഠിക്കാം അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്